അതേല്ലോ എവിടുന്നാ വിളിക്കുന്നേ മ്മ് ആ ആ ഓക്കേ ആ ആ ആ ചോദിച്ചോളൂ ആ ആ ആയിക്കോട്ടെ പറഞ്ഞോ പറഞ്ഞോ സ്വർണ്ണത്തിന് ഇപ്പോള് ഇപ്പോഴല്പം കൂടി നില്ക്കുകയാണ് എന്നാലും പണിക്കുറവ് പണിക്കൂലി ഒക്കെ കുറവുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് സെയ്ല് നടത്താം മ്മ് എൻ്റെ പേര് ലൂക്ക ഉണ്ടാകും ഉണ്ടാകും ഏ എപ്പോള് എപ്പോള് വേണമെങ്കിലും എപ്പോള് വേണമെങ്കിലും പോരേ ആ അത് അത് കുഴപ്പമില്ല കുഴപ്പമില്ല ഒമ്പതു മണി വരെ ഉണ്ട് ആ മ്മ് ആ അതിനുള്ള ഉണ്ട് പല പല പല സൈസിൻ്റ പുതിയ മോഡലും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏതു വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാന് പറ്റും പിന്നെ പഴയതു മാറാനും വല്ലതുമുണ്ടോ പിന്നെ ആ അത് അതു കുഴപ്പമില്ല അതിന് ഇപ്പോഴത്തെ വിലയ്ക്കു തന്നെ എടുക്കുന്നതാണ് അതുകൊണ്ട് വിലക്കുറവൊന്നും ഉണ്ടാവില്ല അതും കൊണ്ടുപോരേ മ് ആ അതല്ല ഇരുപത്തിരണ്ട് ഇപ്പോള് എല്ലായിടത്തും ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ കുറഞ്ഞ് എന്നാ കൊടുത്താൽ എന്താ കുഴപ്പം എന്ന് അറിയാമോ മറിച്ചു വില്ക്കുമ്പോള് അതിൻ്റെ വില കിട്ടില്ല അതുകൊണ്ട് എല്ലാം ഇപ്പോള് നയൺ നയൺ ഒൺ സിക്സ് എല്ലാം തന്നെ മ്മ് ആ അതിന് ഇത് അതൊന്നു നമുക്കൊന്നു പരിശോധിച്ചിട്ട് നമുക്കു ന്യായമായ വിലയ്ക്ക് ഇടപാടു നടത്താം കസ്റ്റമർക്ക് നഷ്ടം വരാതെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നേ അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട ധൈര്യമായിട്ട് പോര് ആ അങ്ങനെ ഇപ്പോള് അതിൻ്റെ മാറ്റ് മാറ്റം ആ ഇത് എത്ര മാറ്റിൻ്റെയാണെന്നാണു പറഞ്ഞത് എത്ര മാറ്റ് എത്ര മാറ്റിൻ്റെയാണെന്നാണു പറഞ്ഞത് ക്യാരറ്റാണെന്നാണു പറഞ്ഞേ ആ പഴയ സ്വർണത്തിന് എന്നാ വില കുറയത്തൊന്നുമില്ലെന്നേ പഴയ വില തന്നെ ഇപ്പോഴത്തെ വില തന്നെ ഇട്ടു തരും മ്മ് ആ ആ ആ

ആ ഏ എന്തേ ആ മാറ്റാനൊന്നും ഇപ്പോള് ഇല്ല എന്റെ മാറ്റം ഒന്നും വരുത്തുന്നില്ല ആ റേറ്റിൽ തന്നെ ഇപ്പോള് കൊടുക്കുന്നുണ്ട്

ഓക്കെ പോര് ഓ

ആ ഓക്കെ ഓക്കെ അതിനു കുഴപ്പമില്ല ഇല്ല ഇല്ല ഇല്ല ആ ഗൂഗിൾ പേ ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഓക്കെ വൈകുന്നേരം ഞങ്ങൾ ഒമ്പത് മണി വരെ ഉണ്ട് ആ ഉണ്ട് ഉണ്ട് പിന്നെ കസ്റ്റമര് അന്നേരം ഉണ്ടെങ്കില് അത് അവരെയൊക്കെ പറഞ്ഞു വിട്ട ശേഷമേ അടയ്ക്കുകയുള്ളൂ ആ അ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ